ഞാനിപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളുമൊക്ക് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നത് ഇപ്പം നമ്മള് ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത് അവിടുത്തെ ജീവികള് ഇപ്പം നാ ഒരു എന്താ പറയുക ഫോറസ്റ്റിന് കുറുകെ നമക്ക് നടിയും കാര്യങ്ങളൊക്കെ ഒഴുകും അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുത്തതലായിട്ട് എടുക്കുക ഇപ്പം കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള മൃഗങ്ങള് കാര്യങ്ങള് പക്ഷികള് അങ്ങനെ പല രീതിയിലുള്ള മൃഗങ്ങള് കാര്യങ്ങളൊക്കെയുണ്ടല്ലൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസ് ഞാനെടുക്കാറുണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാന് ചില ആൾക്കാര് അതായത് നമുക്ക് മനസ്സില് തട്ടുന്ന പല ഫോട്ടോസും ഞാനെടുക്കാറുണ്ട് അതായത് ചില ചില ആൾക്കാരുടെ ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ എടുക്കാറുണ്ട് വേണമെങ്കിൽ പറയാം പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അതായത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറ് അങ്ങനത്തെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പം നമ്മള് കൂടുതലായിട്ടും ഏടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലൊരു ഫോട്ടോ അതായത് തോന്നുവല്ലൊ അത് മാത്രാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുത്തതലുവായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം